മലയാളം എന്നു പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ കേരളത്തിൽ സംസാരിക്കുന്ന ഭാഷയാണ് കേരളത്തിന്റെ മാതൃഭാഷയാണ് മലയാളം പക്ഷെ മലയാളം മാഹിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലക്ഷദ്വീപിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ വ്യത്യസ്ഥായിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളത്തിനോട് സാമ്യമുണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത എന്നു പറഞ്ഞാൽ എന്നാൽ തമിഴ് ഭാഷേയോടും പിന്നെ അതേപോലെ തന്നെ സംസ്കൃതത്തിനോടൊക്കെ ഒരു സാമ്യമുണ്ട് നമ്മുടെ മലയാള സംസാരം മലയാള ഭാഷയ്ക്ക് കാരണം എന്താണെന്ന് വച്ചാൽ ഇതൊക്കെ ദ്രാവിഡ ഭാഷയാണ് ദ്രാവിഡ കുടുംബത്തിൽ ആയതു കൊണ്ട് തന്നെ എല്ലം സംസ്കൃതമാണെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലുമൊക്കെ ഒരു സാമ്യമുണ്ട് പല പാട്ടു കൃതിയിലൂടെയാണ് മലയാള ഭാഷ വന്നത് പ്രധാനപ്പെട്ടതാണ് എഴുത്തച്ഛന്റെ അദ്യാത്മ രാമായണം ഒക്കെ കാരണം എന്നു വച്ചാൽ എഴുത്തച്ഛനാണ് മലയാള ഭാഷ ഇങ്ങനെ ജനങ്ങള്ക്ക് ളിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നത് കാരണം അങ്ങനെ ഓരോന്ന് എഴുതി കൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ടുമൊക്കെയാണ് മലയാള ഭാഷയെ ജനങ്ങള്ക്ക് എത്തിച്ചുകൊടുത്തത് എന്നാല് ഇപ്പോൾ മലയാള ഭാഷ എന്നുള്ളത് എല്ലാവര്ക്കും വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കാണ് കാരണം എല്ലാവര്ക്കും ഇപ്പോൾ ഇംഗ്ലീഷിനോടായി താല്പര്യം എല്ലാവര്ക്കും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം മതി അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നാൽ പണ്ട് ഓരോ സാഹിത്യം അതേപോലെ തന്നെ പാട്ടുകൾ പിന്നെ ഗാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് മലയാള ഭാഷയെ വികസിപ്പിച്ചെടുത്തത് എല്ലാവരും പക്ഷേ വികസനം പലരീതിയില് സാഹിത്യത്തില് നിന്നും വികസിച്ചിട്ടൂണ്ട് എന്നാലും ഇപ്പോൾ സാഹിത്യം ഇംഗ്ലീഷ് സാഹിത്യത്തിലോട്ടല്ലവരും മാറാനായിട്ട് തുടങ്ങി എങ്കില് കൂടി നമ്മളെ എഴുത്തച്ഛന് എന്ന വ്യക്തി മലയാള ഭാഷയ്ക്ക് ഭയങ്കരായിട്ട് സ്വാധിനം ചൊലുത്തിയിട്ടുണ്ട്